ആ ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പം ഡ്രോയിങ് ക്ലാസ് ആണ് അത് എന്ന് പറയുമ്പം പലരുടെയും അനുഭവങ്ങളും അവരുടെ രീതിയും എന്തൊക്കെ വെച്ചിട്ടാണ് അവർ വരക്കുന്നത് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒക്കെ അവർ നമ്മുടെ അടുത്ത് വന്നു പറഞ്ഞിട്ടുണ്ട് അത് ചിലർ ഫോണിൽക്കൂടി ഒക്കെ വരയ്ക്കൽ ൻ്റെ ഓരോ ഷെയ്പ്പിങ്ങും എല്ലാം അതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട് അതിൽ കൂടി വരയ്ക്കുന്നവരുണ്ട് ലാപ്പ് അങ്ങനെ ഉള്ള ഉപകരണങ്ങൾ അങ്ങനെയുള്ള പല ഇതിലും വരയ്ക്കുന്നുണ്ട് ചിലർ എന്ന് പറയുമ്പം ഈ പെൻസിൽ വെച്ച് വരയ്ക്കുന്നവരുണ്ട് അവർ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് പല രീതിയിൽ ഉള്ള അനുഭവങ്ങൾ ഉണ്ട് അവരുടെ യൂസ് ചെയ്യുന്ന പെൻസിൽസ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ അതിൻ്റെ കളറുകൾ പിന്നെ ഈ വാട്ടർ കളർ അങ്ങനെ ഉള്ള ഓരോ കളറുകളുടെ പേരും പിന്നെ അതിൻ്റെ കമ്പനികൾ അതിൻ്റെ ഏതാണ് ഏറ്റവും ഗുണം ഉള്ളത് അതിനെ കൊണ്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ആണോ അങ്ങനെയുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്ന് പറയുമ്പം ലാപ്പ് ആ ലാപ്പിൽ കൂടി വരയ്ക്കുന്നവരും കുറെ ഉണ്ട് അവരുടെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ഇന്ന രീതിയിൽ ഇന്ന ഏപ്പ് ഉണ്ട് അതിലൂടെ വരച്ചു കഴിഞ്ഞാൽ ഇത്ര പെർഫെക്ഷൻ കിട്ടും അങ്ങനെ പലതും പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ അകത്തുള്ള കളർ കൊടുക്കാവുന്ന രീതികൾ നമുക്ക് അറിയാത്തത് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ അറിയുന്നത് അത്യാവശ്യം തന്നെ അവർക്കും പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു രീതിയിലാണ്